എൻ്റെ കുട്ടിയുടെ ഫീസ് ഘടനയെന്നു പറഞ്ഞുകഴിഞ്ഞാല് മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് അവര് ഫീസ് എടുക്കുന്നത് ടേമായിട്ടാണ് എടുക്കുന്നത് അപ്പോള് അതിന് അങ്ങനെയാണ് അത് കൊടുക്കുന്നത് ഏകദേശം ഒരു പത്തു രൂപ അടുപ്പിച്ചു വരും ഓരോ ടൈമിലും അത് നമ്മള് മാനേജ് ചെയ്തു പോകയാണ് ചെയ്യുന്നത് പിന്നെ വേറെ സ്കൂൾ ബസ്സിലായാലും അത് സ്കൂൾ ബസ്സിന് മാസംതോറും നമ്മളടക്കയാണ് ചെയ്യുന്നത് പിന്നെ മറ്റുള്ള മിസെല്ലെനിയസ് ഫീസെന്നും പറഞ്ഞുംകൊണ്ട് വാങ്ങിക്കുന്നുണ്ട് അതും മൂന്ന് മാസത്തിലൊരിക്കല് ഇരുനൂറ്റി അമ്പത് രൂപ അഡിഷനല് വാങ്ങിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്